പഴയ കാലത്തെ പോലെ തന്നെ കൃഷി മൃഗം ചെറുകിട ബിസിനസ്സുകൾ മരപ്പണി അങ്ങനെയുള്ള പിന്നെ കോഴി വളർത്തൽ പശു വളർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും നമ്മുടെ വീടുകളിലാണ് അതിനുള്ള ശരിക്കുള്ള ഉറവിടം ഉള്ളത് പണ്ട് കാലത്തെ വീടുകളിലൊക്കെ ഉപജീവനമാർഗ്ഗമെന്നു പറഞ്ഞാൽ ഈ കൃഷിയും മൃഗ സംരക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് എല്ലാവരും ജോലി മേഖലകൾ ബിസിനസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചതു കൊണ്ട് ഈ കൃഷിക്കത്ര പ്രാധാന്യം ഇല്ലാതായി പറമ്പ് വെറുതെ കിടക്കുന്നു അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലുള്ള ജീവിതം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പിന്നെ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ അകന്നു പോയി കുട്ടികൾ പഠിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നു തന്നെയാണ് ഇപ്പമത് പഠിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഗൂഗിൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് എങ്കിൽ കണ്ടുള്ളൊരു അറിവിൻ്റെ അത്രയും വരത്തില്ല ഒരുപാട് പേര് ഇപ്പോഴും കൃഷിയിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് ഒരുപാട് പേര് ബിസിനസ്സൊക്കെ ഉപേക്ഷിച്ച് കൃ ഷിയിലേക്ക് വരുന്നുണ്ട് ജൈവ വൈവിധ്യങ്ങൾ നിലനിർത്താനായിട്ട് അതു പോലെ തന്നെ മൃഗങ്ങളെ സംരക്ഷിച്ച് എന്നെ വിഷമില്ലാത്ത സാധനങ്ങളൊക്കെ നിർമ്മിക്കാനും ഉൽപാദിപ്പിക്കാനൊക്കെ അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പം പ്രധാനമായിട്ടും കുട്ടികൾ അതു പഠിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ടു തന്നെയായിരിക്കണം പഠിപ്പിക്കേണ്ടത് കാർന്നോന്മാരാണ് സ്കൂളുകൾ അതിനു വേണ്ടിയൊന്ന് വലിയ പങ്ക് വഹിക്കണം വിളകളെന്നൊക്കെ പറഞ്ഞാൽ കൃഷി ശരിക്കും പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള കൃഷിയുണ്ട് നമ്മുടെ വാഴ തെങ്ങ് അങ്ങനെയുള്ള ഭക്ഷ്യ വിളകൾ അതുപോലെ തന്നെ നാണ്യ വിളകളെന്നു പറയുമ്പോൾ കുരുമുളക് ഏലം കാപ്പിക്കുരു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാണ്യ വിളകളിലേക്ക് വരും കാപ്പിക്കുരു ശരിക്കും നാണ്യവിള അല്ല അത് എന്നാലും ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട് വിൽക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പം കൃഷി ഒരു ഉപജീവന മാർഗ്ഗം ആണ് അതു പോലെ തന്നെ നമ്മുടെ ശരിക്കുമുള്ള നല്ലൊരു ജൈവിധ്യം വൈവിധ്യം നിലനിർത്താനായിട്ട് നല്ലതാണ് അതു പോലെ നമ്മുടെ സ് ആരോഗ്യ സുരക്ഷയ്ക്ക് കൃഷി നമ്മൾ സ്വയം കൃഷി ചെയ്യുന്നത് നല്ലതാണ് രാസവളങ്ങളൊന്നും അധികം ഉപയോഗിക്കാതെ തന്നെ മൃഗസംരക്ഷണമെന്നു പറഞ്ഞാൽ വലിയ പശു ഫാമുകൾ പന്നി ഫാമുകൾ അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മൃഗസംരക്ഷണത്തിനു വേണ്ടിയിട്ട് ഒരുപാട് പേര് അതായത് വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പല ആക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് മൃഗസംരക്ഷണം ഇപ്പം നമ്മുടെ വീടുകളിൽ പൂച്ച പട്ടി അങ്ങനെയുള്ള അലങ്കാര സാധനങ്ങൾ മൽസ്യ നെ എല്ലാം എല്ലാം വളർത്തുന്നുണ്ട് പക്ഷേ അവയിൽ നിന്ന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നില്ല അത് അലങ്കാരത്തിനു വേണ്ടി വിനോദത്തിനു വേണ്ടി മാത്രം ചെയ്യുന്നതാണ് പിന്നെ ചെറുകിട ബിസിനസ്സെന്നു പറഞ്ഞാൽ പണ്ടു കാലം തൊട്ട് ഈ ബിസിനസ്സ് മനുഷ്യനാരംഭിച്ച കാലം തൊട്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ കണ്ടു പിടുത്തങ്ങളിലേക്കാണ് മനുഷ്യൻ നീങ്ങുന്നത് അപ്പം തന്നെ പിന്നെ ചെറുകിട ബിസിനസ്സ് ചെറിയ ബാഗ് കുട ചെരുപ്പ് അങ്ങനെയൊക്കെ ഉത്പാദിപ്പിക്കുന്നു ഉണ്ടാക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അത് അതിൽ നിന്നെല്ലാം മാറിയാണ് വലിയ കമ്പനികൾ അത് ശരിക്കും വലിയ കമ്പനികളുടെ വളർച്ച വ്യവസായ വിപ്ലവത്തിനു ശേഷമായിട്ടാണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം ചെറുകിട വ വികസന രീതികളൊക്കെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം വൻ വികസന ത്തിലേക്കൊക്കെ മൊ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഈ മരപ്പണി മരപ്പണിയെന്നു വെച്ചാൽ തടി തടി കൊണ്ടുള്ള സാധനങ്ങൾ നടക്കുകയാണ് മരപ്പണി കട്ടിൽ കസേര അങ്ങനെയുള്ള കാര്യം ആ അങ്ങനെ ചെയ്യുന്നവരെ ആശാരിമാർ എന്നാണ് വിളിച്ചിരുന്നത് ആശാരിമാർ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അത് ആ പണ്ട് കാലത്തൊക്കെ ഇപ്പം ഇങ്ങനെ കോൺക്രീറ്റ് അ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതു കൊണ്ടു തന്നെ തടി വെച്ചിട്ടായിരുന്നു എല്ലാം ചെയ്യിരുന്നത് പണ്ടത്തെ വീടുകളൊക്കെ കണ്ടാൽ നമ്മുടെ ചിമ്മി ചിമ്മിനി അല്ലല്ലോ എന്നതാണ് ഉത്തരം ക നേ കഴുക്കോലങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അതുപോലെ തന്നെ ഉഴു ന്നെ മറ്റെ കൃഷിക്കു വേണ്ടിയിട്ടു തന്നെ ഈ കലപ്പ അതെല്ലാം തടി ഉപയോഗിച്ചിട്ടായിരുന്നു മരപ്പണി ചെയ്യുന്നത് അതൊരു തൊഴിലായിരുന്നു ആശാരിമാർ ആ അതൊക്കെ ഇപ്പം അന്യം നിന്നു പോകുകയാണ് ചില വളരെ കുറച്ച് പേരുകൾ ആൾക്കാർ മാത്രമേയുള്ളൂ അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾ ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നവർ കുഞ്ഞു കുഞ്ഞ് അറ്റകുറ്റപ്പണികൾ അതായത് മേക്കാട്ടുമാർ മേക്കാട്ടുമാരായിരിക്കും അല്ലേ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നവർ മില്ല് മില്ലെന്നു പറയുമ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ട് എ എന്ന പൊടിക്കുന്ന സ്ഥലം അരി കാപ്പി കുരു ഗോതമ്പ് മുളക് അങ്ങനെയുള്ള സാധനങ്ങൾ പൊടിക്കുന്ന ആൾക്കാരാണ് മില്ലെന്നു പറയുന്നത് അതുപോലെ തന്നെ കോഴി വളർത്തൽ കോഴി വളർത്തലിപ്പം ഇപ്പം എനിക്കൊന്നൊരു പത്തിരുപത് വർഷത്തെ ഉണ്ട് വർഷത്തിനിടക്ക് മുപ്പത് വർഷത്തിനിടക്കായിരിക്കും ഈ കോഴി കടയിൽ നിന്നൊക്കെ മേടിക്കൻ തുടങ്ങിയത് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഓടിച്ചിട്ട് പോയിട്ട് കോഴീനെ പിടിക്കുന്നു അതിനെ കൊന്നു കറി വെച്ചു കൊടുക്കുന്നു എന്നൊക്കെ അതിന് നെ ഇപ്പം എങ്ങനെയാണ് ഓടിച്ചെന്ന് കടയിൽ നിന്ന് ബ്രോയിലർ കോഴീനെ മേടിക്കുന്നു അതൊക്കെ ഒത്തിരി ഇഞ്ചക്ട് ചെയ്തു വെച്ച് നമ്മുടെ ഹോർമോണിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം കോഴി വ വളർത്തലങ്ങനെ പിന്നെ പശു വളർത്തൽ പശു വളർത്തൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ വീട്ടിൽ കുഞ്ഞിലെ തൊട്ട് പശുവൊക്കെ കണ്ട് വളർന്നയാളാണ് ഞാൻ കറന്നു കൊണ്ട് വരുന്നതോടെ അതിൻ്റെ പാല് തിളപ്പിച്ച് കുടിക്കുന്നത്തും മിൽമയിൽ കൊണ്ടു കൊടുക്കുന്നു അങ്ങനെയൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ ഒരിക്കലും മായം ചേർക്കാത്ത കലർപ്പില്ലാത്ത സാധനങ്ങളൊക്കെയാണു പിടിച്ച് പൊടിച്ചിരുന്നത് ഇപ്പോൾ ഒരുപാട് ഞങ്ങളുടെ വീട്ടിലൊന്നും ഇപ്പം പശുവൊന്നുമില്ല പിന്നെ പശുവിനെയൊക്കെ നിർത്തലാക്കുകയാണ് വളർത്താനുള്ള ബുദ്ധിമുട്ട് പാലിന് വിലയില്ല അതിൻ്റെ പുല്ലില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ പശു അന്യം നിന്നു പോയി അങ്ങനെയൊരു ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഇപ്പോഴാണെങ്കിലും ഞാനൊരു മിൽമയുടെ സൈഡിൽ കൂടിയണമെന്ന് മ പള്ളിക്കഴിഞ്ഞ് മഠത്തിലേക്ക് പോകുന്ന തിരിച്ച് വരുന്നതൊക്കെ അപ്പണേൽ അവിടെ ചോദിച്ച് പറയുകയാണ് ഒരുപാട് ആൾക്കാർ പിന്നെ എണ്ണം കുറഞ്ഞു പോയി ക്ഷീര കർഷകരുടെ എണ്ണം ഗണ്യമായ രീതിയിൽ കുറഞ്ഞു പോയി എന്നു പറയുന്നുണ്ട് അപ്പം നമ്മുടെ പശുവിനെ വളർത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു പോയിയെന്നു പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പശുവിൻ്റെ എ കർഷകരുടെ എണ്ണം കുറഞ്ഞാലും പക്ഷെ പാലിൻ്റെ അളവിൽ വലിയ കുറവ് സംഭവിക്കുന്നില്ലെന്നു പറഞ്ഞത് ഇപ്പം എല്ലാവരും തന്നെ മിൽമേനങ്ങനെ അധികം ആശ്രയിക്കുന്നില്ല ഒന്ന് മുഴുവനായിട്ട് എടുത്തു കൊണ്ട് പോ അതായിരുന്നു ചെറുകടിയായിട്ട് വാങ്ങിക്കുന്നൊരു കുറവാണ് ഇപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ഇപ്പം കൺമുൻപിൽ തന്നെ കാണുന്നുണ്ട് ഇപ്പം പാല് എല്ലാവരും തന്നെ പാക്കറ്റ് പാലാണ് കൂടുതലായിട്ടാശ്രയിക്കുന്നത് കാരണം പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടില്ല നമുക്ക് ഒത്തിരി നാളത്തേക്ക് മേടിച്ചു വെക്കാം പ്രിസർവേറ്റീവ് ചെയ്തതാണ് ഒരുപാട് നാ പിന്നെ അഴുക്കുകളൊന്നും ഇല്ല നന്നായിട്ട് പിന്നെ വിശ്വാസത്തോടെ കുടിക്കാവുന്ന രീതി പക്ഷെ അത് എത്ര നാൾ ഇരുന്നതാണ് എത്ര ഇതിൻ്റെ കൂടെയുള്ളതാണ് അങ്ങനെയൊന്നും അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല ശരിക്കും നമ്മുടെ വീട്ടിലൊരു പശുവുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു പിന്നെ ആരോഗ്യ സംരക്ഷണം പാലൊരു സമീകൃത ആഹാരമെന്നാണല്ലോ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ പഴയൊരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു പോകുക ഇപ്പം സ്വർഗ്ഗമെന്നു പറയുന്ന ഒരു സിനിമ കണ്ടപ്പോൾ ശരിക്കും അതാണ് പഴയൊരു അതായത് പശുവിനെ വളർത്തുന്നു കൃഷിയും കർഷകർ അങ്ങനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നല്ലതെന്ന് ഒരു കാണിക്കുന്ന ഒരു സിനിമ സ്വർഗ്ഗം എന്നു പറയുന്നത് അതു തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം കുട്ടികൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നു തന്നെയാകണം